പാത്രം ആദ്യം നമ്മൾ പാത്രം എടുക്കുക അതിലോട്ട് കുറച്ചു വെള്ളം ഒഴിക്കുക അതു കഴിഞ്ഞ് അതൊന്ന് ജസ്റ്റൊന്ന് എന്താണ് കൈകൊണ്ട് വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആ സ്ക്രബ്ബർ കൊണ്ടൊന്നു സ്ക്രബ് ചെയ്യുകയോ ചെയ്യുക എന്നിട്ട് എന്താണ് വീണ്ടും കഴുകുക സോ സോപ്പിട്ട് കഴുകിയിട്ട് വീണ്ടും എന്താണ് വെള്ളം ഒഴിച്ചു കഴുകി എന്താണ് സ്റ്റാൻഡിലോട്ടു വെക്കുക അപ്പം എണ്ണമയമുള്ളത് കഴുകുകയെന്നു വെച്ചാൽ അതൊന്നെടുത്തിട്ട് നമ്മളതിനകത്ത് കുറച്ച് വിമ്മോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ഡിഷ് കഴുകുന്ന ഡിഷ് വാഷ് അങ്ങനെയെന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ മറ്റേ സ്റ്റീൽ നാരിനകത്ത് നമ്മൾ ഡിഷ് വാഷ് എന്താണ് പറ്റിച്ച് നമ്മൾ നല്ലവണ്ണം തേച്ചു കഴുകണം നല്ലവണ്ണം തേച്ചുരച്ച് ആ എണ്ണമയമെല്ലാം പോകുന്നുണ്ടോയെന്നു നോക്കി കഴുകിയതിനു ശേഷം എന്താണ് വെള്ളം കൊണ്ടു കഴുകി അതു മൊത്തം വൃത്തിയാക്കി എന്താണ് എടുക്കണം